മലയാളഭാഷ പറയുമ്പോൾ പലവിടെയും പല സ്ലാങ്ങ് ആണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ പല സ്ഥലത്തും പല സ്ലാങ്ങ് ആണ് ഇപ്പോൾ വ്യാകരണം എങ്ങനെയാണോ അതായിരിക്കില്ല ഉച്ചാരണത്തിൽ ഉണ്ടാവുക നമ്മൾ ഇപ്പോൾ പറയണത് ശരിക്ക് അച്ചടി ഭാഷ പറയുമ്പോൾ ഒറ്റ മലയാളഭാഷ ആയിരിക്കും പക്ഷെ പലവടേയും പല സ്ലാങ്ങ് ആയതുകൊണ്ടുതന്നെ വ്യാകരണത്തിൽ ഉള്ളതായിരിക്കില്ല ഉച്ചാരണത്തിൽ വരുക ഉച്ചാരണത്തിലും നമ്മൾ പറയുന്നതൊക്കെ ഒന്ന് തന്നെയായിരിക്കും പക്ഷേ രണ്ടും പുറത്തുനിന്ന് ഒരാൾ വന്നാൽ കേൾക്കുന്നത് വേറെ ആയിരിക്കും അതാ ഉച്ചാരണത്തിൻറെ ഇതാണ് അത് അവരുടേതായ സ്ലാങ്ങ് അവര് അങ്ങനെയായിരിക്കും അവരുടെ നാട്ടിലുള്ള പ്രദേശത്ത് ഒക്കെ സംസാരിക്കുന്നുണ്ടാവുക അപ്പോൾ ഉച്ചാരണം ഒരാളുടെ പലരുടെയും പല രീതിയിലായിരിക്കും വ്യാകരണം ഒന്നായിരിക്കും പക്ഷേ ഉച്ചാരണം പലരിലും പല ഡിഫറൻസിലായിരിക്കും അത് ഓരോരുത്തരുടെ ഭാഷയും മലയാളം എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയായിരിക്കും ഉച്ചാരണം ചിലപ്പോൾ പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവില്ല ചിലപ്പോൾ പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവും ഇതൊക്കെ അവരെ അപേഷിച്ച് ഉച്ചാരണവും വ്യാകരണത്തിൻ്റെയും ഡിഫറൻസ് അനുസരിച്ചിരിക്കും